ഞാൻ അമലായിരുന്നു അ എനിക്ക് പനിയും ജലദോഷൊക്കെ ഭയങ്കരമായിട്ട് കൂടുതലായിരുന്നു അപ്പം അത് കാണിക്കാൻ വേണ്ടിയായിരുന്നു അ എനിക്ക് ഇരുപത്താറ്

ചൂടാക്കി അ ഓക്കെ അ അ ഞാൻ ഇന്നലെ ഒന്ന് മഴ കൊണ്ടായിരുന്നു അതുകൊണ്ടാണോന്നറിയില്ല വല്ലാണ്ട് നല്ല പനിയായിരുന്നു

സിട്രിസയിൻ അല്ലേ അ ഓക്കെ ഓക്കെ അ ഓക്കെ ഇല്ല എനിക്ക് ഇന്നലെ ഒന്നും രാത്രി മര്യാദയ്ക്ക് ഉറങ്ങാൻ പറ്റിയില്ല ചുമ ഭയങ്കര ചു മയായിരുന്നു അ അ അ

അ ഓക്കെ ഓക്കെ അ അ ഓക്കെ ഓക്കെ ഓക്കെ അ പിന്നെ എനിക്ക് അ ഉണ്ടായിരുന്നു പിന്നേ ഇപ്പം എന്താ പറയുക ചുക്ക് കാപ്പി അങ്ങനത്തെ എന്തെങ്കിലും കുടിച്ചാൽ പ്രശ്നം എന്തെങ്കിലും ഉണ്ടോ ശരിയാകും അല്ലേ അ തൊണ്ടയ്ക്ക് എന്തോ ഒരു കരകരപ്പാണ് തൊണ്ടയ്ക്ക് നല്ല കരകരപ്പ് തോന്നുന്നുണ്ട് മുഖംകഴുകുക അ ഓക്കെ ഓക്കെ പാരസെറ്റമോൾ അങ്ങനെ എന്തെങ്കിലും കുടിക്കണോ

അ ഓക്കെ ഓക്കെ അ ഓക്കെ അ അ അ അ ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ ഡോക്ടർ ഞാൻ കുറഞ്ഞില്ലെങ്കിൽ ഞാൻ വരാം കുറഞ്ഞില്ലെങ്കിൽ ഞാൻ വന്ന് കാണിക്കാം വേറെ ആർക്കും ഇല്ലാ ഓക്കെ എന്നാൽ